എനിക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത് കാരണം ഞാൻ ഇടയ്ക്ക് അവിടെ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട് ഞങ്ങൾ ആദ്യം നാട്ടും പുറത്തായിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കവിടിയാറാണ് ഞങ്ങളുടെ താമസെന്ന് പറയണത് എനിക്ക് വളരെ താല്പര്യമാണ് അവിടെ പോയി തൊഴാന് ബാക്കി ഏത് അമ്പലങ്ങളിലും ഏത് സമയത്ത് വേണേം നമുക്ക് പോവാം പന്ത്രണ്ടു മണി വരെ ഒക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ നമ്മൾ ഒരു കൃത്യസമയത്ത് പോയാൽ മാത്രമേ അവിടെപ്പോയി ഭഗവാനെ തൊഴാൻ പറ്റുള്ളൂ അപ്പോൾ അത് സമയം അനുസരിച്ച് വേണം നമ്മൾ പോവാൻ പിന്നെ ആണുങ്ങൾ ആണെങ്കിൽ ഷര്ട്ട് ഇട്ടൂടാ മുണ്ട് ഉടുത്തോണ്ടേ കയറാവൂ പെണ്ണുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ സാരി ഉടുത്തിട്ട് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളോണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി തന്നെയാണ് എല്ലാവരെയും കാണാനായിട്ട് പിന്നെ കുട്ടികളാണെങ്കിലും മുണ്ടൊക്കെ ഉടുത്ത് വന്ന് നിൽക്കുന്നത് കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും പിന്നെ ഇപ്പം കുറെ നിലവറകളെല്ലാം തുറന്നിട്ടുണ്ട് അതിൽ പലതും തുറന്നിട്ടില്ല എന്നാലും തുറന്ന നിലവറകളിലെല്ലാം ഒരുപാട് സ്വർണവും ഭഗവാന് അണിയേണ്ട ആഭരണങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ബി നിലവറ ഇതുവരെ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല അത് എന്നെങ്കിലും തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് തുറന്നാൽ നമ്മുടെ നാട് നശിക്കുമെന്നാണ് പറയണത് പക്ഷേ എന്താവും ഇനിയുള്ള തീരുമാനങ്ങൾ എന്നുള്ളത് എനിക്ക് അത്ര അറിഞ്ഞു കൂടാ പിന്നെ പിന്നെ അവിടത്തെ പൂജകളെല്ലാം വളരെ ഭംഗിയുള്ളതാണ് ഇപ്പം ഭഗവാന്റെ രൂപം കാണാനും അങ്ങനെ തന്നെ മുഴുവൻ സ്വർണത്തിലുള്ളതാണ് ആദ്യം അങ്ങനെ അല്ലായിരുന്നു നമ്മൾ പോയി നോക്കുമ്പോൾ കറുത്ത നിറത്തിലാണ് കാണുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം പൂർണമായിട്ടും സ്വർണത്തിന്റെ ഇതില് തന്നെയാണ് പിന്നെ മൂന്ന് വാതിലുകളും തുറക്കുന്ന ചില ദിവസങ്ങളുണ്ട് പക്ഷേ അത് അത്ര കൃത്യമായിട്ട് ഇപ്പം പറഞ്ഞു തരാന് എനിക്കറിഞ്ഞുടാ ഞാന് ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട് ആ ദിവസങ്ങളിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഭാഗം മുതൽ ഒന്നാമത്തെ വാതിലും രണ്ടാമത്തെ വാതിലും മൂന്നാമത്തെ വാതിലിലും പോയി ഒരുമിച്ച് നമുക്ക് കാണാനുള്ള അവസരം കിട്ടും ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ